ഒരു എഴുത്ത്ുകാരന് എപ്പും ഉണ്ടാവകുന്ന ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു ഉൽക്കണ്ട എന്നുള്ള വെച്ചാല് അവൻ്റെ എഴുത്ത് മറ്റുള്ളവരെ എങ്ങനെ സ്വാധീനിക്കും അവന് എഴുീത് മറ്റുള്ളവരെ എങ്ങനെയാണ് അതിനെ റീഡിയ്യാ അതിൻ്റെ ആശയം എങ്ങനെയാണ് മനസ്സിലാക്കാ എന്നുള്ളതാണ് ഒരു എുത്തുകാരന് എഴത് കഴിഞ്ഞ അവൻ മരിച്ചാലും പിന്നെ ആശയം അത് വായിക്കുന്ന ആൾുടൊണ് എഴുത്തുകാരൻ്റെതല്ല അതിനനുസരിച്ചാണ് ഓരോ എഴുത്തും വരേണ്ടത് ഒരാൾ എഴുതുന്ന ഒരാളൊര എഴുത്തുകാരണമാകുന്നത് അദ്ദേഹ അതിൻ്റെ ആശയങ്ങള് വായനക്കാലക്ക് എങ്ങനെ കൃത്യമായി എത്തിക്കുന്നു എന്നുള്ളതാണ് ഞാന എഴുതുന്നത് എൻ്റെ എഴുത്ത് എത്രത്ര പോരാ അല്ലെങ്കില് ഇത്ര ഉള്ളു എന്നുള്ളത് എനിക്ക് പല സമയ പല സമയങ്ങള തോന്നിയിട്ടുണ്ട് ഞാൻ എഴത് പഠച്ച് വരുമ്പോ തുടക്കാലങ്ങളിൽഴുത് പഠച്ച് വരുമ്പോ തന്നെ എനക്ക്ത് അനുഭവപ്പെട്ടുള്ളതാണ് എൻ്റെ എുത്തിത്തട പോരാ എത്ര ഉള്ളു എത്ര മെച്ചപ്പെടുത്തേണ്ടത്ുള്ളത് എനിക്ക് അന്നേ തോന്നിട്ടുള്ളതാണ് പക്ഷേ എൻ്റെ എയ്ത്തില എങ്ങനെയാണ് മെച്ചപ്പെടുത്തേണ്ടത് എന്നുള്ളതൊക്കെ ഞാന എൻ്റെ മുകളിലില്ല എ എന്നെക്കാ വളർന്ന എഴുത്തുകാരുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സംശയങ്ങളൊക്കെ ആരുടമായി ചോദിച്ച് അതിൻ്റെ ഉത്തരങ്ങളൊക്കെ കണ്ടെത്തിീയിട്ടാണ് ഞാൻ എൻ്റെ എഴുത്തിുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് പിന്നെ അങ്ങനെ ഞാന എൻ്റെ എഴുത്തിെക്കുറിച്ചുള്ള പ്രശ്നങ്ങള്ൾ വേറെട് ചോദിച്ചോളാണ് അദ്ധഹം എന്നോട് പറയണത് ഈ എഴുത്തന്ന് പറഞ്ഞാലല് നിൻ നിൻ്റെ ആശയങ്ങള്ൾ എഴുത നിൻ്റെ ആശയങ്ങള് ജനങ്ങളിലേക്ക് എത്തിക്കാ അത് അവര് വായിച്ചു അത് അവരുടെ ആശയങ്ങള് അതിൻ്റെ അർത്ഥം അവരെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അതാണ് അതിൻ്റെ ആശയങ്ങള് ഒരെ എഴുത്തുകാരൻ് എഴതി അവന് മരിച്ചു എന്നാാലും പിന്നെ എഴുുകാരൻ്റെ ആശയങ്ങളല്ല അത് വായിക്കുന്നാരാണോ അവരങ്ങനെയാണ് ആ എഴുത്തിന് അതിനെ വായിക്കുന്നത് അല്ലെങ്കി അതിൻ്റെ ആശയങ്ങള് മനസ്സിലാക്കുന്നത് അതിനനുസരിച്ചാണ് ഓര എഴുത്തിൻ്റെയും ആശയങ്ങള്ൾ വരുന്നത് എന്നുള്ളതാണ് അദ്ദേഹംക്ക് മറുപടി നൽക്കത് അപ്പോ എൻ്റെഴത്ത് പല ഞാന് വ്യത്യസ്ത ചന്ദ്രിക എല്ലാന്തണ്ടെങ്കിലിൽ മാധദ്യം എന്നീ പിരിയോഡിക്കൽസൊക്കെ ഇത് പബ്ലിഷ് ചെയ്ത് തോന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് ചെല സമയങ്ങളില്ല ഞാനിപ്പ ഇത്ര വളർന്നതിന് ശേഷമാണെന്നുണ്ടെങ്കിലും ഇപ്പ എനിക്ക് ഇരുത്തി രണ്ട് വയസ്സായി ഇരുവത് വയസ്സായി അപ്പ ഇപ്പ ആണെന്നുണ്ടെങ്കിലും എനക്ക് എൻ്റെ എയ്ുത്തി ഇത്ര പോരന്ന് എനിക്ക് പല സമയങ്ങളിൽ തോന്നാറ്ണ്ട് തോന്നാറുണ്ട് അപ്പ ഞാന് ഡയിലി ഓരോ കവിതെയ്ത ഓരോിവസ രോ കവിതഴ്തിട്ട് ഞാ എൻ്റെുകളിലിൽ എ്റെ ഗൈഡിനെ കൊണ്ടയി കാണിച്ചച്ച് കൊടുക്കും അപ്പ അദ്ദേഹത്തിനെ കൊൊണ്ട് ഡെയിലി അതിന് എല്ലാ ദിവസവും അതില് എഡിറ്റിങ്ങ് വരുത്തിീട്ടാണ് ഞാാനിൻ്റെ ഓരോ കവിതയും ഓരോ ദിവസം നീക്കുന്നത് അപ്പ ഞമ്മളൊര എ്ത്തുകാരണം നല്ലൊരു എുത്ത്ുകാരണം ആവണെന്നുണ്ടെങ്കില് ജനങ്ങളെ മനസ്സിലാക്കുന്ന അല്ലെങ്കി ജനങ്ങൾ വായിക്കുന്ന നല്ലരു എുത്തുകാരണം ആവണെന്നുണ്ടെങ്കില് നമ്മള് സൊസൈറ്റി കുുറിച്ച അറിയാണ് സമൂഹത്തിലെ സമൂഹത്തിെ കുുറിച്ചുള്ളൊരു ബോധം സാമൂഹക് ബോധം നമുക്ക് ആാവശ്യമണ്ട് സമൂഹത്തി എന്താണ ഇപ്പ നടക്കുന്നത് ഇപ്പ നമ്മളള്ള കറൻറ്റ് ഇഷ്യു എന്താണ് ഇതൊക്കെ നമ്മള് മനസ്സിലാക്കിയല്േ നമ്മള് എഴുത്തി അതിനെക്കുറിച്ചുള്ള ഒരു വരികള് നമുക്ക് കൊണ്ടുുവരരാൻ സാധിക്കൊുള്ളൂ അപ്പോാണ് ജനങ്ങൾക്ക് നമ്മൾുടെ എയ്ുത്തിലേക്ക്ൊ ഒരു ആകർഷത വരകയുള്ളു ജനങ്ങള് വായിക്ക ജനങ്ങള് നമ്മള് എഴുത്തും മുുകേ് അവര് സമൂഹത്തിലുള്ള കാര്യങ്ങള് അവര് മനസ്സിലാക്കിയ എന്നുള്ളതൊക്കെയാാണ് നമ്മുടെ ല എഴുത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം ഇപ്പോ എഴുതിയിട്ട് അല്ലെങ്കിൽ ഒരു സാഹിത്യത്തി മുഖേനെ കൊറേ ആളുകള് കൊറേ സമ്പാദിക്ക നിക്കണ്ട് അപ്പ അതൊക്കെ സാഹിത്ംുള്ളത അല്ലെങ്കിൽ എഴുത്ത്ന്നുള്ളതക്കര് സാമ്പത്തിക മേഖല കൂടിയാണ് അപ്പ നമ്മള് നമ്മൾുടെ എഴുത്തില് കൂടുതല് മെച്ചപ്പെടുത്തുക ഉയരുക